എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഞാൻ ഒരു പൂന്തോട്ടം ചെയ്യാനായിട്ട് സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുത്തത് അതായത് പൂന്തോട്ടം നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ ഹെല്പുകളും അവൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തു അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് പ്ലേസ് അതായത് സ്ഥലം കണ്ട് പിടിച്ചതും പൂന്തോട്ടത്തിന് അനിവാര്യമായിട്ടുള്ള സ്ഥലം കണ്ട് പിടിച്ചതും അവിടെ എന്തൊക്കെ ചെടിക്കൾ വേണം എന്തൊക്കെ തൈകൾ നടണം എന്നെല്ലാം ഞാൻ തന്നെയാണ് അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതും അതേപോലെ വീടിൻ്റെ മുറ്റത്ത് പേൾ ഗ്രാസ് അതേപോലെ നിറയെ പുൽത്തകിടി ഉണ്ടാക്കാനും എല്ലാം ഒരുപാട് ഹെല്പും എല്ലാ ഹെല്പും ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത് അതേപോലെ നമ്മൾ ഒരു പൂന്തോട്ടം നിർമ്മിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അവിടുത്തെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് വേണം നിറയെ ചെടികൾ വേണം വിത്തുകൾ വേണം ഇതെല്ലാം ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്നും അതേപോലെ പുറത്ത് നിന്നും വാങ്ങിയും എൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തു പിന്നെ അതേപോലെ നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ നിറയെ ബുദ്ധിമുട്ട് നമ്മൾ ഒരു പൂന്തോട്ടം മെയിൻറ്റെയ്ൻ ചെയ്ത് പോവുമ്പോൾ നിറയെ ബുദ്ധിമുട്ടുകൾ വരും അതായത് ഈ മീലിമുട്ട വരുകയും അല്ലെങ്കിൽ പുഴു വെള്ളീച്ച മുഞ്ഞ തുടങ്ങിയ ഒരുപാട് ക്ഷുദ്ര ജീവികൾ നമ്മുടെ പൂന്തോട്ടത്തിനെതിരെ നമ്മുടെ പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ എന്തുചെയ്യുമെന്ന് വെച്ചാൽ കു ജൈവ വളം രാസ വളങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല ജൈവ വളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ആ ജൈവ വളങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുപാട് കൂട്ടുകളുണ്ട് ഇതെല്ലാം ഞാൻ തന്നെയാണ് പറഞ്ഞ് കൊടുത്തത് ആദ്യത്തെ കുറച്ച് നാൾ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെയാണ് ജൈവ വളങ്ങളെല്ലാം ഉണ്ടാക്കി ചെടികളിൽ തളിച്ചതും അതിനെ സംരക്ഷിച്ചതും എല്ലാം ഞാനാണ് ഇപ്പോൾ നല്ല രീതിയിൽ അവൾ ഗാർഡൻ മെയിൻറ്റെയ്ൻ ചെയ്ത് കൊണ്ട് പോവുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര അതായത് വളരെ സന്തോഷമുണ്ട്